ഹലോ

ആ ഇത് കാട്ടിക്കുളം ഹോളിഡേയിൽ റെസ്റ്റോറൻ്റ് അല്ലേ ആ ഞങ്ങൾ ഇവിടെ എറണാകുളത്താണ് ആ അപ്പം ഞങ്ങൾ രണ്ട് വണ്ടിയായിട്ട് രണ്ട് ട്രാവല്ലറായിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് അവിടെ റെയ്റ്റൊക്കെ പിന്നെ പാർക്കിങ്ങ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ആ ആ ആ അപ്പം നമ്മളിപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങ് സൗകര്യം ഉണ്ടാവും അല്ലേ പിന്നെ എങ്ങനെയാണ് എന്തൊക്കെയാണ് കഴിക്കാനൊക്കെ ഉള്ളത് ആ ഞങ്ങളിത്ര പേരുണ്ട് അപ്പോൾ ഫുഡ് ബുക്ക് ചെയ്യാനോ അങ്ങനെയെന്തെങ്കിലും പറ്റുമോ ഇല്ല അല്ലേ ആ ഓക്കേ ഓക്കേ ആ ആ അപ്പം പാർക്കിങ്ങൊക്കെ റെഡി ഞങ്ങൾ ഒരൂ ഒരു വൈകുന്നേരം നാലു മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ആവും കേട്ടോ ആ ആ പേര് യദു ആ ആ ഓക്കേ ഓക്കേ